ഇന്ത്യൻ വിനോദ വ്യവസായ വളരെ രീതിയിലാണ് മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ടൂറിസം മേഖലകളിൽ ടൂറിസം മേഖലകൾ ലുള്ള ഡെവലപ്മെൻറ് അതിലൂടെ ലഭിച്ചിരിക്കുന്ന സാമ്പത്തിക ലാഭം ഒക്കെ വളരെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഉള്ളത് രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള വിനോദം എന്ന് പറയുന്നത് കൂടുതലും സ്പോർട്ട്സ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്പോർട്ട്സ് കല കായികമായിട്ടുള്ള രീതിയിൽ വളരെ വളരെ ജനപ്രിയമായിട്ടുള്ള ജന ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ജനപ്രിയമാണ് എന്ന് വിശ്വസിക്കുന്നു കലാപര കായികപരമായിട്ടൊള്ള കഴിവുകൾ കാരണം ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ യുവജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സ്പോർട്ട്സിനെ വളരെ രീതി വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവർ നെഞ്ചിലേറ്റു ഏറ്റു ഏറ്റു കൊണ്ട് നടക്കുന്ന ഒരു ജനതയാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാം കായിക മത്സരങ്ങളിൽ ഇന്ത്യയിൽ വെച്ച് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രാതിനിധ്യവും ഏറ്റവും ജന സപ്പോർട്ടും കിട്ടുന്നത് പല ലോകരാഷ്ട്രങ്ങളും എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്

ഫിലിം ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ ഫിലിം മേഘലകളിലാണെങ്കിൽ സിനിമ രംഗങ്ങളിലാണെങ്കിലും ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യത ഉള്ളത് ഫിലിം മേഖലയാണ് എന്ന് തോന്നുന്നു കൂടുതലും ഇന്ത്യയിലുള്ള ആൾക്കാർ കാണപ്പെടുന്നത് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നത് കൂടുതലും തമാശ കലർന്ന കാര്യങ്ങളാണ് എന്ന് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മനസ്സിനെ എൻ്റർടെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ കൂടുതൽ അത് ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്